എനിക്ക് രണ്ട് ദിവസം ആയിട്ട് പനി ഉണ്ടായിരുന്നു വേറെ തലവേദന ഉണ്ട് ജലദോഷം ഒന്നുമില്ല തൊണ്ടവേദന ഇല്ല തലവേദനയും പനിയും ആണ് കുടുതലായിട്ട് ഉള്ളത് എങ്ങനെ ആ ചെറുതായിട്ട് നനഞ്ഞിരുന്നു ഇല്ല രണ്ട് ദിവസമായി അത് പനി മിനിഞ്ഞാന്ന് ആണ് തുടങ്ങിയത് ഇല്ല കഴിച്ചിട്ടില്ല ഇല്ല ഇല്ല

എത്ര ദിവസം കഴിക്കണം ആ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഞാൻ മാനന്തവാടിയാണ്

ഇല്ലില്ല ബുദ്ധിമുട്ടില്ല ആ ഓക്കേ വേറെ ഒന്നുമില്ല തലവേദന മാത്രമേ പ്രത്യേകിച്ചുള്ളൂ ആ ഓക്കേ ഓക്കേ

ആ അത് ഉണ്ടാവും ആ ഉണ്ടാവും

ആ ഓക്കേ ഓക്കേ

ഓക്കേ ഓക്കേ ആ